അവിടെ ഇന്ന് എന്താ സ്പെഷ്യല് രാവിലത്തേക്ക് പിടിയും കോഴിയും ഉണ്ടാകുമോ

അല്ല രാവിലത്തേക്ക് ഒരു പത്ത് പേർക്കുള്ളത് മതി ഉച്ചത്തേക്ക് ഒരു അഞ്ഞൂറ് പേർക്കുള്ള ഭക്ഷണം വേണം അ രാവിലെ പത്ത് പേർക്കുള്ളത് മതി

ഇല്ല കുഴപ്പമില്ല ഓക്കെ ഓക്കെ അത് അവിടുന്ന് കഴിച്ചോളും വന്നിട്ട് കഴിച്ചോളും ഉച്ചക്ക് ഉള്ളത് അവരെടുത്ത് കൊടുത്തു വിട്ടാൽ മതി ഒരു പന്ത്രണ്ട് മണി ആകുമ്പോൾ

വേണ്ട അവരുടെ കയ്യില് കൊടുത്താൽ മതി വേണ്ട ഒന്നും വേണ്ട ബിരിയാണി ഏതാ ഉള്ളത്

ചിക്കൻ കൊടുത്തോ ഒരു നാന്നൂറ് ചിക്കൻ ബിരിയാണിയും ഒരു വെജിറ്റബളും കൂടി കൊടുത്തോ

ഇരുപത്തേഴാം തിയ്യതി ഇല്ല വൈകുന്നേരത്തേക്ക് വേണ്ട ഉച്ചക്കുള്ളത് മാത്രം മതി വേണ്ട അതൊന്നും വേണ്ട ഭക്ഷണം മാത്രം മതി ക്യാഷ് എങ്ങനെയാണ് വേണ്ടത് അഡ്വാൻസ് വേണമെങ്കിൽ അങ്ങനെ തരാം ഇല്ലെങ്കിൽ അവിടെ വന്നിട്ട് ആണെങ്കിൽ ആയിക്കോട്ടെ